ഡിജിലോക്കറിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത് കാണിച്ചു തരാം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്പറ് കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി നിങ്ങൾ അത് നോക്കി അത് പ്രശ്നമൊന്നുമില്ല എല്ലാ ഡാറ്റയും ഇതിൽ ഉണ്ടാവും പിന്ന അതിന് മാറ്റം വരുത്താനൊക്കെ സുഖമാണ് നിങ്ങൾ ഒന്നു മൊബൈൽ നമ്പർ അടിച്ചാൽ മതി ലോഗിൻ ചെയ്യാനും എളുപ്പമാണ് നിങ്ങൾ ഈ ഫോണ് തരാൻ ഞാൻ നോക്കട്ടെ ചെക്ക് ചെയ്തു നോക്കട്ടെ റെഡി ആണ് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല ഇത് ലോഗിൻ ചെയ്ത്ണ് അതുകൊണ്ട് കുഴപ്പം ഇല്ല നിങ്ങളെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണുകയും ചെയ്യാം ഇനി ഇത് തുറക്കാനും സുഖമാണ് അത് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഡോക്യുമെൻസിൽ പോയാൽ നിങ്ങളെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് എളുപ്പമാണ് ഇനി പരിപാടി നിങ്ങളെ പാസ്പോട്ടോ ലൈസൻസോ എല്ലാം ഇതിൽ ആഡ് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങൾ ഇനി ഇത് നോക്കിയാൽ മതി ഓക്കെ